കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യവാണ് കാരണം കുട്ടി മലയാളമാണ് നമ്മുടെ മാതൃഭാഷ അപ്പം മലയാളത്തിൽ കേരളീരായ എല്ലാ കുട്ടികളും മലയാളം പഠിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം കുട്ടികളെ മലയാളം പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായൊരു കാര്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പാടുള്ളൊരു ഭാഷയായിട്ട് മലയാളം മാറിയിട്ടുണ്ട് മാറയിട്ടുണ്ടെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ വളരെ എല്ലാ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ മലയാളം നല്ല പാടാണ് ഒരു ആൾക്ക് പഠിക്കാൻ അപ്പഴ് കുഞ്ഞുകാല കുട്ടിക്കാലത്ത് തൊട്ടേ ഒരു മലയാളം പഠിക്കുക എന്നുള്ളത് പഠിക്കുന്ന മലയാളം പഠിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പം മലയാളം എല്ലാരേം പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു